ചായയേണ് പ്രധാനായിട്ടും ഹോട്ടലിൽ പോയാലും തട്ടുകടയിൽ പോയാലും സാധാരണ കഴിക്കാറുള്ളത് എന്താന്ന് വച്ചാൽ ചായയാണ് ചായയും കടിയുമാണ് ഇപ്പോൾ ഹോട്ടലിൽ പോയി വേണം നമ്മള് ഫുഡ് ഐറ്റംസ് കഴിക്കും ചോറ് കഴിക്കും അതേപോലുള്ള ഫുഡ് ഐറ്റംസോക്കെ ഹോട്ടലിൽ പോയാൽ കഴിക്കും പക്ഷെ തട്ട്കടെ പോയാലും കഴിക്കും പക്ഷെ തട്ട്കടക്ക് കൂടുതലും ഈവനിംഗ് സമയത്ത് പ്രവർത്തിക്കുന്നത് ആണ് അതേപോലെ അവടെ ദോശ ഈ ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ ഫുഡ് ഐറ്റംസ് നമുക്ക് തട്ട്കടെ കിട്ടണന്നില്ല തട്ട് കടയില് കിട്ടും മറ്റേ ഫ്രഷ് ആയിരിക്കും നമുക്ക് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നല്ല ടേസ്റ്റുണ്ടാകും നമുക്കത് വേണ്ടത് കഴിക്കാൻ പറ്റും പക്ഷെ കോസ്റ്റ് വലിയ കാര്യോന്നും ഉണ്ടാവില്ല നമുക്ക് അഫൊർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയായിരിക്കും തട്ട് കടേകള് ഹോട്ടലിലും വല്യ റേറ്റൊന്നും ഉണ്ടാവില്ല നമുക്ക് പറ്റുന്നത് തന്നെയായിരിക്കും പക്ഷേ തട്ട് കടയാണെങ്കി നമുക്ക് അധികം കഴിക്കും നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റും ഹോട്ടലിലും കഴിക്കാറക്കേണ്ട് പക്ഷെ ഹോട്ടലിലുള്ള എല്ലാ ഫുഡും ഇവിടേം കിട്ടണംന്നില്ല ഇവിടേള്ള ഫുഡ് എല്ലാം അവിടേം കിട്ടണന്നില്ല മെയ്നായിട്ട് രണ്ടവിടേം പോയിട്ട് കഴിക്കാറുള്ള സാധനം ചായയാണ് ചായകുടിക്കും ഹോട്ടലിൽ കേറിയലും തട്ട്കടേ പോയാലും മെയ്നായിട്ട് ചായകുടിക്കാറാണ് പതിവ് പിന്നെ ഫുഡ് ഐറ്റംസുണ്ടെങ്കി അതും കഴിക്കാറുണ്ട്